തീർച്ചയായും ഇപ്പോള്ളൊരു മിഡിൽ ക്ലാസ് വിദ്യാർത്ഥി ആയാലും അത്യാവശ്യം റിച്ചായിട്ടുളള വിദ്യാർത്ഥികളായാലും അവരെല്ലാം തുടർന്ന് അധികമായി നല്ലനല്ല പഠനമേഖലകളാണ് തിരഞ്ഞെടുക്കുന്നത് അതിനായി തന്നെ അവർ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെ കേരളത്തിൽ വിദ്യാഭ്യാസമ്പന്നത അത്ര കൂടുതൽ വലുതല്ലാത്തതുകൊണ്ട് അവർ പുറത്ത് പുറം സംസ്ഥാനങ്ങളിലേക്ക് പോകാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഈ കർണാടക തമിഴ്നാടു എന്നിങ്ങനെ പുറം സംസ്ഥാനങ്ങളിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് അതിന് കാരണം എന്നുവെച്ചാൽ അവർ ഒന്നാമത്തത് അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയും ആണ് രണ്ടാമത്തത് അവിടെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന ചിന്തയോ കാരണം കേരളത്തിൽ പഠിക്കുന്നത് പഠിക്കുന്നതിലൂടെ അവർക്ക് ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ ജോലി സാദ്ധ്യത വളരെ കുറവാണ് കേരളത്തിൽ പഠിച്ചിട്ടും ഒരു ജോലി നേടുക എന്നത് അപ്പോൾ തന്നെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പുറം മേഖലയിലേക്ക് പോകുമ്പോൾ ജോലി സാദ്ധ്യത കൂടുതൽ ഉണ്ട് എന്നാണ് അതായത് പാരാമെഡിക്കൽ കോഴ്സുകൾ ബി സി എ പോലെയുള്ള കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കോഴ്സുകൾ പിന്നെ അഗ്രികൾച്ചറൽ കോഴ്സുകൾ ഇതിനൊക്കെ ആളുകൾ കുടുതലും തിരഞ്ഞെടുക്കുന്നത് പുറം രാജ്യങ്ങളാണ് അത് മാത്രമല്ല ഏറ്റവും ലോ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചവർ ആക്കട്ടെ അവർ എങ്ങനെയെങ്കിലും പഠിച്ച് കേരളത്തിൽ തന്നെ ഒരു ജോലികിട്ടണം എന്ന ചിന്തയോടെ നടക്കുന്ന പഠിക്കുന്നവരാണ് അവരും അത്കൊണ്ട് തന്നെ കേരളത്തിലെ ജോലി സാദ്ധ്യതയില്ല എന്ന് പറയുന്നില്ല എന്നിരുന്നാലും പുറം പുറം സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വളരെ കുറവാണ് എന്നാൽ തന്നെ പലപല വിദ്യാഭ്യാസ മേഖലങ്ങൾക്കായി പുറം രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുകയും വിദ്യാഭ്യാസത്തിനായി അവിടെ പോകാൻ താത്പര്യപ്പെടുകയും ചെയ്യുന്നു